എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കസേരയാണ് കസേരയും കൊണ്ട് നമ്മളിപ്പോൾ ഞാൻ അതായത് എൻ്റെയൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഈ കസേര കണ്ടത് നമുക്ക് ചാരി ഈ ഇരിക്കാനും എന്താ പറയുക ഇപ്പോൾ കിടന്നുറങ്ങാനും ഒക്കെ പറ്റിയ ഒരു കസേരയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി തീരെ പോരാ കാരണമെന്തെന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ സാധനമാണ് നമ്മൾ അതിന് വലിയ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ എൻ്റെയൊരു സുഹൃത്ത് പറഞ്ഞു നല്ല സാധനമാണ് അപ്പോൾ നീ അത് എടുത്തോളൂ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത് പക്ഷേ ഞാൻ അത് ഇരുന്ന് കഴിഞ്ഞിട്ടത് വലിയ കംഫർട്ടബിളും കാര്യങ്ങളുമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ചാരി ഇരിക്കാമെന്നു മാത്രമേയുള്ളൂ പിന്നെ അതിനു വലിയ ബലമോ കാര്യങ്ങളൊന്നുമില്ല നമ്മളൊന്ന് മര്യാദക്കൊന്ന് ചാരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി അതിൻ്റെ ബാക്കുവശം ചിലപ്പോൾ പൊട്ടിത്താഴെ വീഴാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് ഒരു മോശമായിട്ടുള്ളൊരു കസേരയാണെനിക്ക് അതിൽനിന്ന് കിട്ടിയത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് സമയത്ത് അത് ചെറിയൊരു പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചവർ ഞാൻ റിട്ടേൺ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ റിട്ടേണും കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് റിട്ടേൺ അയക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണത് കിട്ടിയത്